ഞങ്ങൾക്ക് ടാപ്പ് വെള്ളം ലഭിക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് ലഭിക്കാറുള്ളത് ഇതിന് മുന്നേ ഞങ്ങള് നേരത്തേ കിണറ്റിൽ നിന്നൊക്കെയായിരുന്നു ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള കിണറ്റിൽ നിന്നൊക്കെയായിരുന്നു ഞങ്ങൾക്ക് വെള്ളമെടുക്കാൻ വേണ്ടി ഞങ്ങള് പോവുക പോവുകയൊക്കെ ചെയ്തിരുന്നത് പിന്നേ ഇവിടേ എല്ലാ വീടുകൾക്കുവായിട്ട് ടാപ്പ് കൊടുത്തു ടാപ്പ് കൊടുത്തപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കിട്ടണത് ആ എല്ലാത്തിനും യൂസ്ഫുൾ ആണ് ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും നമ്മള് ബാത്ത് റൂം യൂസ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും യൂസ് ഫുൾ ആയിട്ടുള്ള വെള്ളം തന്നെയാണത് പിന്നേന്ന് പറഞ്ഞാൽ വെള്ളം രാവിലേ തൊട്ട് വരും രാവിലെ ഒരു അഞ്ച് മണിക്ക് അഞ്ച് മണി റ്റു ഏഴു മണി വരെ ഉണ്ടാകും അതേപോലെ തന്നേ വൈകുന്നേരവും അതുപോലെ തന്നേ അഞ്ച് മണി റ്റു ഏഴു മണി വരേ വെള്ളമൊക്കേ വരാറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണത് ഇവിടേയൊക്കേ എല്ലാവർക്കും ലഭിക്കാറുള്ളത്